മലയാളം സംസാരിക്കാൻ അറിയാത്ത ആളുകളുമായി ആശയ വിനിമയം നടത്താൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് കൈയ്യാണ് കൈയും നമ്മുടെ എക്സ്പ്രഷനും കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ ഇപ്പോഴത്തെയല്ല നേരത്തേത് എങ്ങനെയാണെങ്കിലും പല ഭാഷകളിലുമുള്ള ചില വേർഡ്സ് അത് മലയാളത്തിലുമുണ്ട് ഹിന്ദിയിലുമുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും പല ആളുകൾക്കും അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് കൂടുതലും എക്സ്പ്രഷനിൽ കൂടെയാണ് നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങൾ മറ്റു ഭാഷക്കാരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അത് വലിയ ഒരു ഇഷ്യു ഒന്നുമല്ല കൈയോ കാലോ എടുത്ത് ഒക്കെ നമുക്ക് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ നമ്മുടെ ആശയങ്ങൾ മനസിലാക്കിക്കാൻ സാധിക്കും